ഹലോ സാറെ ഞാൻ ലീനയാണ് ഞാൻ ആലപ്പുഴ ജില്ല ആലപ്പുഴെന്നാണ് വിളിക്കണത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു മില്ല് നടത്തുന്നവരുണ്ടേ അപ്പം അവർ ഒരു ദിവസം ഇങ്ങനെ അവരുടെ മീറ്ററിൽ എന്തോ കൃതൃമം കാണിക്കുന്നതായിട്ട് ഞങ്ങൾ മില്ലിൽ ചെന്നപ്പോൾ കണ്ട് പക്ഷേ അവരുടെ ബി ബില്ലൊക്കെ വരുന്നത് തീരെ കുറവാണ് അപ്പോൾ സാറെ ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ അറിയിക്കണ്ടേ ഇതൊരു ക്രമക്കേടല്ലേ അത് മോശമല്ലേ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ എൻ്റെ നേരെ തട്ടിക്കയറയൊക്കെ ഉണ്ടായി പക്ഷേ സാറെ അവർക്ക് മില്ലും നടത്തുന്നുണ്ട് അതിൻ്റെ കൂടെ എ സിയും വാഷിംഗ് മെഷീൻ എല്ലാ ഐറ്റം ഉണ്ടായിട്ടും അവർക്ക് വളരെ തീരെ കുറഞ്ഞ ഇതാ ബില്ലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ നഷ്ടപ്പെ നഷ്ടമല്ലേ അതുകൊണ്ട് സാറെ അതിനു വേണ്ട എന്തെങ്കിലും ഒരു നടപടികൾ എടുക്കുവോ അതോ അവിടെ വന്ന് അതൊന്ന് അനേഷിക്കോ വന്ന് കണ്ടെത്തോ അതിനുവേണ്ട നടപടിക്രമങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം സാധാരണകാരനും ഈ രീതിയിൽ തന്നെ ജീവിക്കുന്നതല്ലേ അവൻ അവൻ എടുക്കുന്ന കറണ്ടിൻ്റെ അളവ് തന്നെ അവൻ ബില്ല് അടക്കുകയും കാശുള്ളവന്മാർ ഇമ്മാതിരി പണി കാണിക്കുമ്പോഴത്തേക്ക് അത് മനുഷ്യ സമൂഹത്തിന് തന്നെ ഒരു വിനയല്ലേ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കാണുമ്പോൾ സാറെ ഇതിനെതിരെ പ്രതികരിക്കണം പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ച് ഇത് അറിയിക്കുന്നത് ഇതിനു വേണ്ട നടപടികൾ ചെയ്ത് തരണം എന്ന് അപേക്ഷിക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ഇതിനു വേണ്ട നടപടികൾ ചെയ്തു തരിക